ഹലോ ഹലോ ആ വീണ ചേച്ചി ഞാൻ വിളിച്ചതേ ചേച്ചി വീട്ടിലാണെങ്കിലെ പൈപ്പൊന്നും വർക്ക് ചെയ്യുന്നില്ല എല്ലാം കംപ്ലയിന്റാണ് ഫാനാണെങ്കിൽ കറങ്ങുന്നില്ല അപ്പോൾ വീട് വാടകയ്ക്ക് തരുമ്പഴേ അതൊക്കെ ശരിയാക്കി തന്നിട്ട് വേണ്ടായിരുന്നോ വിളിക്കാന് ഇപ്പം വന്നപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കി തരാവോ ആ കുഴപ്പമില്ല പക്ഷെ ഇപ്പം വന്നപ്പം വർക്ക് ചെയ്യുന്നില്ല പിന്നെ പിള്ളാർക്കൊക്കെ ഫാനൊക്കെ ഇല്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ വലിയ പരിചയക്കാര് ഇല്ലാത്തത് കൊണ്ട് ആ സാധാരണ ആരെയാണോ വിളിക്കുന്നത് ആളെയൊന്ന് ഏർപ്പെടുത്തി തരാവോ ആ ആ അതെ ആ ഉടനെ ഏർപ്പാടാക്കണേ ഏ ആ ആ അല്ലെങ്കിൽ പിന്നെ നമ്മ ഉം ആ ഹാ ആ ഹാ ആ പിന്നെ

ആ ഹാ ആ ഹാ ആ

ആ ഹാ ഹാ ആ ആ ഹാ ആ പിന്നെ അവരോട് പിന്നെ ഉഴപ്പാതെ വേഗം വരാൻ പറയണേ എന്നാണെന്ന് വെച്ചാൽ അത്യാവശ്യവാണേ വെള്ളവൊക്കെ ആ ഹാ വെള്ളാവോക്കെ കോരി എടുക്കാൻ പാടാ കിണറ് മിറ്റത്തുണ്ടേലുവേ കോരാനൊക്കെ ഭയങ്കര പാടാണ് ആ പിന്നെ എല്ലാ കാര്യത്തിനും കോരി എടുക്കാൻ വലിയ പ്രയാസവല്ലേ അതുകൊണ്ടാണ് ആ ആ ഹാ ആ ഹാ ആ ആ ഹാ ആ ആ ആ ആ ആ ആ ഹാ ഹാ ആ എന്നാൽ പിന്നെ ചേച്ചിക്ക് നേരം ഉണ്ടെങ്കിൽ ഇഞ്ഞോട്ടൊന്ന് ഇറങ്ങാവോ ആ ആ ആ ഹാ ഹാ ഹാ ഓ പിന്നെ ഒന്നുമില്ല ചേച്ചി പിന്നെ അപ്പം ഇന്ന് തന്നെ ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്ക് ഇപ്പം അധിക സമയം ആയിട്ടില്ലല്ലോ ഏതേലു ഒരു ജോലിക്കാരെ കണ്ടു പിടിച്ചൊന്ന് തരാമോ ഇന്ന് ഒരു വേസ്റ്റ് കുഴിയും കൂടെ കുത്തി തരാൻ പറയണേ ഒരു വേസ്റ്റ് കുഴിയെ ആ അതായത് പിന്നെ അതും പാടാണെ നമ്മള് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വലിച്ച് എറിയാൻ പറ്റത്തില്ലല്ലോ അടുത്തൊക്കെ ആൾക്കാര് ഉള്ളതല്ലേ വീടുകളൊക്കെ അവര് വല്ല കംപ്ലെയിൻറ്റും ചെയ്യില്ലേ ആ അതും അത്യാവശ്യമാണേ ആ ആ ഹാ ആ അതിനുള്ള ആൾക്കാരുണ്ടോ ആ അടുത്ത് അറിയാന് പരിചയത്തിൽ വല്ലവരും ഉണ്ടോ ഉണ്ടോ ആ ഹാ ഹാ ആ അപ്പം ആ ആ ശരി ഉം